ഞാൻ നെയ്ത്ത് പഠിച്ചിട്ടുണ്ട് ചെറുതായിട്ട് ചെറുത് മീൻസ് ഒരു പതിനാല് പതിനഞ്ച് വയസ്സായ ഒരു ടൈമില് നെയ്ത്ത് പഠിച്ചു ആ സമയത്ത് അത് പഠിപ്പിക്കുമ്പോഴുണ്ടായ ഏറ്റവും മറക്കാനാകാത്തൊരു അനുഭവമെന്ന് പറഞ്ഞാല് അവര് ഇത് അടിക്കാൻ വേണ്ടി ഓരോ ഭാഗവും ഇങ്ങനെ വെച്ച് കാണിച്ചുതരും അപ്പോള് അവര് നമുക്ക് ചിലപ്പോള് ചിലസമയത്ത് ആ ഒരു അവര് പറയുന്നൊരു പൊസിഷന് എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോള് മനസ്സിലാകില്ല ഉം അപ്പം നമ്മള് ഏകദേശം രൂപമൊക്കെ വെച്ച് അങ്ങടിച്ചുവരുമ്പോള് ഈ സാധനം ഏത് ഭാഗത്തുകൂടെയാണ് നമുക്കിടേണ്ടത് ആ ഭാഗത്തുകൂടെ ഇറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും ആ ഡ്രസ്സ് പിന്നെ വരിക അത് ആ രണ്ട് ഭാഗങ്ങള് അവര് പറയുന്ന ഡ്രസ്സിൻ്റെ പീസുകള് ശരിക്കും ഒരേ ഭാഗം വെച്ച് അവര് പറയുന്നതുപോലെ തന്നെ വെച്ചടിച്ചിട്ടുണ്ടെങ്കിലേ അത് റെഡിയാവുകയുള്ളൂ അപ്പോള് അത് ഭാഗം മാറിപ്പോയിട്ടുണ്ടെങ്കില് പിന്നെ ആ ഡ്രസ്സ് ഒന്നിനും പറ്റില്ല അതുപോലെ കഴുത്തിറങ്ങുന്ന ഭാഗത്ത് കൈയിറങ്ങുന്ന ഭാഗമൊക്കെ പലപ്പോഴും കൂട്ടി അടിച്ചുപോകും ഉം ഇതടിച്ചുകഴിഞ്ഞിട്ട് അത് ആ ടീച്ചറിന്റെയടുത്ത് കൊണ്ടുപോയി ചെല്ലുമ്പോള് അവരുടെ ഒരു ചീത്ത അതൊന്നും ഒരിക്കലും മറന്നുപോകില്ല സ്റ്റിച്ച് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നല്ലയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് നമുക്കൊരു ഡ്രസ്സൊക്കെ അടിച്ച് വളരെ നന്നായി അതിങ്ങനെ പിന്നെ ഏറ്റവും നല്ലയൊരു അനുഭവമെന്ന് വെച്ചാല് ഒരു ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഒരു പൂർണ്ണമായ ഡ്രസ്സ് വളരെ നന്നായി അടിച്ചിങ്ങോട്ട് വരുമ്പോള് അല്ലെങ്കിൽ അത് നമ്മളടിച്ചത് ഇട്ടുനോക്കുമ്പോള് അത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് അതിപ്പോളാണെങ്കിൽപ്പോലും നമ്മളടിച്ച് നമ്മള് കട്ട് ചെയ്ത് നമ്മള് തന്നെ അടിച്ച് അതിടുമ്പോള് ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെയൊരു ലെവലാണ് നമ്മള് വാങ്ങിയ ഡ്രസ്സിനുപോലും അത്രയും സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരാൻ കഴിയില്ല നല്ലയൊരു സംതൃപ്തിയുണ്ടാകും അങ്ങനെയിട്ട് അത് ഉപയോഗിക്കുമ്പോള് തുന്നൽ പഠിപ്പിച്ചിട്ടുമുണ്ട് പഠിപ്പിക്കുമ്പോള് അത് പറഞ്ഞതുപോലെ അവരുടെ ചില ഭാഗങ്ങള് പറഞ്ഞുകൊടുക്കുമ്പോള് അതവർക്ക് എത്ര പറഞ്ഞാലും അതങ്ങ് മനസ്സിലാക്കിയെടുക്കാൻ ചില ഭാഗങ്ങൾ അപ്പോള് അതിന് പിന്നെ അതിനിടയ്ക്ക് ഈ തുന്നല് പറഞ്ഞുകൊടുക്കുമ്പോള് ഒന്നും കൂടെ വളരെ പെർഫെക്റ്റായിട്ട് പറഞ്ഞുകൊടുക്കാൻ കഴിയുകയാണെങ്കില് അതും നല്ലതാണ് കാരണം ഈ അളവുകളൊക്കെ ഭാഗം മാറി ചെയ്യുമ്പോള് വല്ലാത്തയൊരു ബുദ്ധിമുട്ടാണ് അത് ആ കറക്റ്റായിട്ട് വരുമ്പോള് വളരെ നേർക്ക് വരണം ഉം അതായത് ഓരോ അളവുകളും അതിൻ്റെ കറക്റ്റ് കറക്റ്റില് കാരണം ഇതൊരുപാട് അളവുകള് പല സൈസിലും വരുമ്പോള് പെട്ടെന്ന് പെട്ടെന്ന് മറന്നുപോകും അത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇക്വേഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില് അത് വളരെ ഉപകാരമാണ്